ഗ്രാമീണ സമൂഹത്തിൽ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് വഴി നമുക്ക് ഒരുപാട് കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ കഴിയും ഇതിലൂടെ നമുക്ക് ഒരുപാട് ആളുകളുമായി ഇടപഴകാനും ആളുകളെ പരിചയപ്പെടാനും കഴിയുന്നു ഇതിലൂടെ സൗഹൃദം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും ബന്ധങ്ങളും സൗഹൃദവും വ്യാപിപ്പിക്കാനും വളർത്താനും ഇത്തരം വിനോദങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മുടെ ഗ്രാമത്തിലെ ആളുകളുടെ പ്രചോദനവും സ്നേഹവും നേടാൻ ന ഇത്തരം വിനോദങ്ങളിലൂടെ വിനോദങ്ങളിലേർപ്പെടുന്നതിലൂടെ കുട്ടികൾക്കും നമുക്കും സാധിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും ശരീരം നന്നായി ശ്രദ്ധിക്കാനും സാധിക്കുന്നു ഇതുവഴി നമുക്ക് ഗ്രാമത്തിൻ്റെ വളർച്ചയിൽ ഒരു ഭാഗമാകാൻ കഴിയും നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് കായിക താരങ്ങളെ വളർത്തിയെടുത്ത് വലിയ നിലയിലെത്തിക്കാൻ നമുക്ക് ഇതിലൂടെ കഴിയുന്നു ഇത്തരം ഗ്രാമ പ്രദേശങ്ങളിൽ നിന്ന് വളർന്ന് വരുന്നത് കൊണ്ട് തന്നെ അത്തരം താരങ്ങൾക്ക് ഏത് കാലാവസ്ഥയിലും തളരാതെ പോരാടാൻ കഴിയും രാജ്യത്തിൻ്റെ കായികപരമായ വളർച്ചയിൽ പോലും ഇവർക്ക് വളരെ വലിയ സംഭാവനകൾ നൽകാൻ കഴിയുന്നു